ആ ഹലോ സംസാരിച്ചോ ആ എന്തോ ഹലോ ആ കേള്ക്കാം പറഞ്ഞോ

അതെ മ്മ് ഓക്കെ ആ അതെ നമുക്കൊരു മാർച്ച് പാസ്റ്റ് സംഘടിപ്പിക്കാം അതുപോലെ വിവിധ തരത്തിലുള്ള പ്രസന്നവേഷങ്ങള് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണല്ലോ അപ്പോള് ഇൻഡിപെൻഡൻസ് ഡേയ്ക്ക് മഹാത്മാ ഗാന്ധിയുടൊരു പ്രച്ഛന്നവേഷം അവതരിപ്പിക്കാന് പറ്റുവാണെങ്കിലും നന്നായിരിക്കും അതുപോലെ നമുക്ക് ഫ്ളാഗ് എല്ലാ കുട്ടികൾക്കും കൊടുത്തുകൊണ്ടൊരു പിന്നെ ഒരു മാർച്ച് പാസ്റ്റ് പോലെ മാർച്ച് പാസ്റ്റോ അങ്ങനെയൊക്കെ നടത്തുന്നതു നല്ലതാണ് പിന്നെ വിവിധ കലാപരിപാടികൾ നമുക്ക് അവതരിപ്പിക്കാന് പറ്റും കുട്ടികളുടെ ഡാൻസ് പാട്ട് അതുപോലെ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗമത്സരം അങ്ങനെയൊക്കെ നടത്തുക എന്നിട്ട് അതിലൊക്കെ വിജയികളായിട്ടുള്ളവർക്കൊക്കെ നല്ല നല്ല പ്രോത്സാഹന സമ്മാനങ്ങൾ ഒക്കെ കൊടുക്കുക അങ്ങനെ കുട്ടികൾക്കൊരു പ്രോത്സാഹനമാകും നമ്മൾക്ക് അതു കാണാനും കേൾക്കാനും മാതാപിതാക്കളെ ഒക്കെ ക്ഷണിക്കാം അപ്പോള് എല്ലാവരും കൂടെ അതൊരു നല്ലൊരു ആഘോഷമാക്കാനായിട്ട് നമുക്കു സാധിക്കും അപ്പോള് നമ്മുടെ സ്വാതന്ത്ര്യദിനം അങ്ങനെ എല്ലാ തരത്തിലും വളരെ മനോഹരമായിട്ടു കൊണ്ടാടാൻ നമുക്കു പറ്റും അങ്ങനെ അങ്ങനെയൊക്കെയുള്ളൊരു പ്രോഗ്രാം അറേഞ്ചെയ്താൽ നന്നായിരിക്കും നല്ല രീതിയിൽത്തന്നെ നമുക്ക് ഡെക്കറേഷൻ നടത്തി കുറച്ചു സാമ്പത്തിക ചെലവുകൾ ഉണ്ടാകുമായിരിക്കും അതു നമ്മള് പരിഗണിക്കാതെ എല്ലാവരുടെയും അഭിപ്രായത്തോടെയാണ് നല്ല രീതിയില് നമുക്ക് സ്റ്റേജോക്കെ ഡെക്കറേറ്റ് ചെയ്ത്

ആ നമുക്ക് റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പോള് നമുക്ക് സ്വാതന്ത്ര്യദിനത്തിനു പിള്ളാർക്ക് ഫ്ലാഗ് കൊടുക്കുന്നതു നല്ലതാണല്ലോ നമ്മളൊരു

ആ അത് അതൊക്കെ നല്ലതാണ് മാർച്ച് ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു റാലി പോലെയൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കില് കുട്ടികളെല്ലാം എല്ലാവർക്കും ഒരു ഭാഗം തൊപ്പിയൊക്കെ കൊടുത്ത് എല്ലാവർക്കും കൂടിയൊരു റാലി ആയിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽത്തന്നെ ആ ഒരു ആ ഒന്ന് റൗണ്ട് അടിച്ചുവരാൻ തരത്തിൽ എന്തോന്നാ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് നമുക്ക് പതാക ഉയർത്തല് വേണം അത് അത്യാവശ്യമാണല്ലോ സ്വാതന്ത്ര്യദിനം നമ്മൾ പതാക ഉയർത്തണം ആ അപ്പോള് കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാം സാന്നിധ്യത്തില് നമ്മള് പതാക ഉയർത്തി മനോഹരമാക്കി മാർച്ച് പാസ്റ്റും അതുപോലെ പരേഡും ഒക്കെ നടത്തി എല്ലാം ഒത്തിരി ആഘോഷമാക്കി നമുക്ക് ഇത് കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് എല്ലാവര്ക്കും കൂടെ ഒന്ന് ചേർത്ത് ഒന്നു പരിശ്രമിക്കാം അതെ അതെ നമുക്കതു നല്ല കാര്യമാണ് കുട്ടികൾക്ക് ഓരോ മുട്ടായിയൊക്കെ കൊടുത്ത് അവരെ ഈ വെയിൽ കൊണ്ടൊക്കെ നടക്കുന്നു കുട്ടികളല്ലേ അപ്പോള് അവർക്കതൊരു സന്തോഷമാകും വീണ്ടും നമ്മള് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കായിട്ടു വിളിച്ചു കഴിഞ്ഞാൽ അവര് ഉത്സാഹത്തോടെ യൂണിഫോം ഒക്കെ അണിഞ്ഞു വരും എല്ലാവരെയും പരമാവധി യൂണിഫോമിൽ തന്നെ ഇറക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം അപ്പോള് കഴിയുന്നത്ര എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് അവർ കാണാനായിട്ട് അവരുടെ മാതാപിതാക്കളും കൂടെ കൂടി വരുകയാണെങ്കിൽ ഒത്തിരി നന്നായിരുന്നു നമുക്ക് നല്ലൊരു എന്തോ അതെ മാതാപിതാക്കൾ അതെ മാതാപിതാക്കളെക്കൂടി നമുക്ക് ഇതില് പങ്കെടുപ്പിച്ചുകൊണ്ട് മ്മ് ആ ടീച്ചറെ നമുക്ക് ഇനി അടുത്ത ദിവസം കാണുമ്പോള് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുക്കാം എന്നാല് വയ്ക്കട്ടെ മ്മ്